ഹലോ ഹലോ

ആ അതെ ഇതാര് വിളിക്കുന്നത് ആ ആ ആ ആ അതെയോ എത്ര സ്കൊയർ ഫീറ്റ് കൂട്ടണം എത്ര ഫീറ്റ് നിങ്ങളെ ഒരു എത്ര സ്കൊയർ ഫീറ്റ് കൂട്ടേണ്ടി വരും ഹും ഹും

അതെയോ ആ ആ ആ ആ അതെ അല്ലേ അത് ഞാൻ എസ്റ്റിമേറ്റ് ഒരു എണ്ണൂറ് സ്കൊയർ ഫീറ്റ് ഉണ്ടല്ലോ ഞാൻ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് പറയാം എത്ര എമൗണ്ട് വരുമെന്ന് പറഞ്ഞാൽ പോരെ അതെല്ലാം എല്ലാം കേട്ടിട്ട് നാളെ അറിയണ്ടേ അത് അത് അറിഞ്ഞിട്ട് ഞാൻ ഒരു വൈകുന്നേരം നിങ്ങൾക്ക് അറിയിക്കാം ആ അതെ

ആ ആ ആയിക്കോട്ട് ഞാൻ ഒരു എസ്റ്റിമേഷൻ എല്ലാം പറയാം വൈകുന്നേരം രാത്രി വിളിക്കാം നിങ്ങളെ പറഞ്ഞെങ്കിൽ പിന്നെ മുമ്പോട്ട് പോവാം നമുക്ക് അല്ലേ ആ അ ആ അ ആ ആയിക്കോട്ടെ അ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി അപ്പം ഉം ആ ശരി ഉം ശരി